അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ളതിൽ വച്ചിട്ട് നോക്കുമ്പോൾ കൂടുതലായിട്ട് നമുക്ക് പറയാനുള്ളത് മത്സ്യ ബന്ധനങ്ങളിലൊക്കെ പൊളിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന വിദ്യകളെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കേട്ടിട്ടുള്ളതെന്നു പറഞ്ഞു കഴിഞ്ഞാൽ ചില സമയത്ത് കടൽ കരയുക എന്നൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട് കാരണം വലയിടാൻ പോകുന്നവർക്കൊന്നും ഒര് മീനിനെപ്പോലും കിട്ടാത്ത ഒരു സാഹചര്യമാണ് സാധാരണ ആ ഒരു സിറ്റ്വേഷനെയാണ് കടലിൻ്റെ കരിഞ്ഞു പോകുകയെന്നൊക്കെ പറയുക അതായത് ഒരു മീനിനെപ്പോലും കിട്ടാണ്ട് നമ്മൾ നോക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെയാണ് ഉണ്ടാവുക ഇപ്പോൾ എന്താ പറയുക അത് ഒരു മിഥ്യയായിട്ടാണ് കാണുന്നത് കാരണം കടലമ്മ ചതിക്കുക അങ്ങനെയാണ് ഒക്കെയാണ് പറയുന്നത് കാരണം പാവപെട്ടവർ കുറെ കഷ്ടപ്പെട്ടിട്ടൊക്കെ മീനിനെ പിടിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് വലിയ ഒരു ഇതു തന്നെയാണ് അത് എന്നാലും എന്താ പറയുക അവർക്ക് കുറെ ദിവസത്തേക്ക് ജോലിയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ടൊക്കെ വരുമ്പോൾ അതൊരു വലിയ ബുദ്ധിമുട്ട് നേരിടേണ്ടതായിട്ട് വരുന്നുണ്ട് പിന്നെന്താ പറയുക കടലിലെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ വലിയ മീനുകളെയൊക്കെ പിടിക്കണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെയായിരിക്കും എന്നൊക്കെ പറയുന്നവരുണ്ട് പിന്നെ ഭയങ്കര ആഴമായിരിക്കും അപ്പോൾ ശ്രദ്ധിക്കണം ഇപ്പോൾ എന്താ പറയുക ഒറ്റയ്ക്ക് പോവാൻ പറ്റില്ല ആൾക്കാരൊക്കെ വേണമെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ അവിടെ നമ്മൾക്ക് പ്രശ്നങ്ങളായിട്ട് നേരിടേണ്ടതായിട്ട് വരുന്നുണ്ട്